നമ്മുടെ സംസ്ഥാനത്തെ പൊതുഗതാഗതത്തിൽ ഏറ്റവും നല്ലതായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ബസ്സുകൾ തന്നെയാണ് എന്നുവെച്ചാൽ ബസ്സിൽ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാം സുരക്ഷിതമാണ് മനുഷ്യന് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തെത്തി ചേരാമാ ബസ്സിനു ചെല്ലുമ്പോൾ അതുപോലെ സ്വന്തമായ വാഹനത്തേലാണെങ്കിലും നമുക്ക് ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്തെത്തിച്ചേരാൻ സാധിക്കും അതേ സമയം നമ്മുടെ സ്വന്തമായ വാഹനത്തിലാകുമ്പം നമുക്കെവിടെയെങ്കിലും നിർത്തി ഒന്ന് ഒന്ന് വിശ്ര വിശ്രമിക്കണം അല്ലെങ്കിൽ ഒരു വെള്ളം കുടിക്കണം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കതുമൊരു സുരക്ഷിതത്വവും നമ്മുടെ നമുക്കിച്ചിരി നേരം ഇറങ്ങി വെളിയിൽ നിന്നു കാറ്റു കൊണ്ട് യാത്രയൊക്കെ സുഗമമാക്കാവുന്നതാണ് എല്ലാവരുടെയും ക്ഷീണമൊക്കെ മാറ്റാം പക്ഷേ ട്രെയിനിൽ പോയാൽ യാത്ര സുഖമാണ് ടോയ്ലെറ്റുണ്ട് എല്ലാം നമുക്ക് എല്ലാം ഒട്ടൊച്ചിരി നേരം ഒന്ന് കിടക്കണതിലൊന്നു കിടക്കാം പക്ഷേ ട്രെയിനേലെ ടോയ്ലെറ്റൊന്നും വൃത്തിയുള്ളതല്ല ട്രെയിനാണെങ്കിലും അപ്പിടി അഴുക്ക് എല്ലാവരും പ്ലാസ്റ്റിക്കും വേസ്റ്റും എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇടുന്നു വൃത്തിയെന്നു പറയുന്നത് ട്രെയിൻ തീരെ കുറവാണ് എങ്കിലും ഒരു വിധത്തിൽ ഈ പുകയുടെയും പിന്നെ ഈ ഓരോ സ്ഥലത്ത് നിർത്തുന്നതും ഈ പാൻപരാഗും മറ്റേതൊക്കെ വായിലിടുന്നതും സിഗറട്ട് വലിക്കുന്നതും അതിൻറ്റേതായ ഈ പുകയും ഈ ഈ ഇങ്ങനത്തുള്ള ഒത്തിരി ഒത്തിരി വൃത്തിക്കേടുകൾ പിന്നെ കഴിക്കുന്ന ഓരോരുത്തരുടെ വേസ്റ്റിൻ്റെ എല്ലാവരും അതിനകത്തോട്ടു തന്നെ ചായ കുടിച്ചാൽ കപ്പ് അവിടോട്ടിടും ആ ഒരു കുപ്പി തൂക്കുന്ന ആ ഒരു ഇതിനേക്കങ്ങോട്ടിടുക കൂടുതലും വൃത്തികേടാക്കാവുന്നതിൻ്റെ പരമാവധി ട്രെയിനേലാകുമ്പം വൃത്തികേടാക്കും നമ്മളെന്തു കൊണ്ടും ബസ്സിൽ പോയാൽ ഇതിൻ്റെ നാലിലൊന്ന് ഇതിൻ്റെ യാതൊരുമായ ബുദ്ധിമുട്ടുകളുമില്ല നമുക്ക് സ്വയം നമ്മുടെ കുപ്പിയിലിച്ചിരി വെള്ളമൊക്കെ കരുതി നമ്മൾ പോകാമെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മൾ ബസ്സേ യാത്ര ചെയ്തു നമ്മുടെ യാത്ര സുരക്ഷിതമാക്കാം പിന്നെ കുറച്ചു സമയം ഇരിക്കണമെന്നുള്ളതേ ഉള്ളു അല്ലാതെ വേറെ ബുദ്ധിമുട്ടില്ല നല്ല അന്തരീക്ഷത്തിലൂടെ നമുക്ക് കടന്നു പോകാം അവിടെ പുക വലിയോ അവിടെ വേറെ തോന്നിയ വാസങ്ങളോ ഒന്നുമില്ല ട്രെയിനേലാകുമ്പോൾ ഇതെല്ലാം ഉണ്ട് മറ്റുള്ളവരുടെ തോന്നിവാസത്തിലുള്ള സംസാരവും നോട്ടവും പാൻപരാഗും എല്ലാം വലിക്കുകയും ഇടുകയും അങ്ങനെ കുറേ കുറേ നമുക്കിഷ്ടപ്പെടാതെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെയങ്ങനെ അതെന്തോ ട്രെയിൻ യാത്രക്കാട്ടിലും ഏറ്റവും സൗകര്യം നമ്മുടെ പ്രൈവറ്റ് ബസ്സോ ട്രാൻസ്പോർട്ടോ അങ്ങനെയുള്ള ആ ബസ്സുകളിൽ യാത്ര ചെയ്യാമെങ്കിൽ നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് അങ്ങ് എത്തിച്ചേരാം അതാണ് എന്തു കൊണ്ടും എല്ലാവർക്കും യോജിച്ചത് ലേഡീസ് കംപാർട്ട്മെൻറ്റ് ഞാൻ പിന്നെ ലേഡീസ് കംപാർട്ട്മെൻറ്റിലാണെങ്കിലും കുറേ ഇങ്ങനെ അവരവിടിരുന്നാലും ചില വൃത്തികേടുകൾ കാണിക്കുന്നവരുണ്ട് ഫോൺ ഇങ്ങനെ ഫോൺ വെച്ചു കൊണ്ട് പാട്ടും വെച്ച് ഫോണവിടെ കുത്തിയിട്ട് അപ്പം പാട്ടും വെച്ചു മറ്റുള്ളവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു പിന്നവരുടേതായ ആ ഒരു രീതിയിൽ കൂടെ കുറേ പേരും കൂടി ചിരിച്ചും മേളിച്ചും ആ ഒരു അവിടെയും ഒരാഘോഷം പോലെയാണ് അവരല്ലാതെ നടത്തുന്നത് മറ്റുള്ളവരുടെ ആ ഒരു കാ സമയമോ അവരുടെ ഒരു ബുദ്ധിമുട്ടോ അസ്വസ്ഥതയൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനങ്ങ് പോകുകയാണ് എന്തു കൊണ്ടും ഏറ്റവും നല്ല യാത്ര അവനവൻ്റെ വണ്ടിയേക്കാട്ടിലും അവനവനുള്ള വാഹനത്തേക്കാട്ടിലേറ്റവും സുഗമമായിട്ടുള്ളത് നമ്മുടെ ട്രാൻസ്പോർട്ട് അല്ലേ പ്രൈവറ്റ് ബസ് ഈ ബസ്സുകളിൽ യാത്രയാണ് എന്നും എപ്പോഴും നമുക്ക് സുഖകരമായിട്ടുള്ളത്